ജോലി സ്ഥലങ്ങളിലെ സംഘർഷങ്ങൾ എന്നു പറഞ്ഞാൽ കൊളീഗ്സ് തമ്മിലാണെങ്കിൽ നമ്മൾ അവർ തമ്മിൽ അധികം സംസാരിക്കാൻ ഇടയുണ്ടാക്കില്ല കാരണം മാനേജ്മെൻ്റിൻ്റെ കൂടെ ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവർ അവരുടെ വഴി നമ്മൾ നമ്മുടെ വഴി എന്ന രീതിയിൽ നിൽക്കും ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളത് പറഞ്ഞു തീർക്കാൻ നോക്കും അല്ലെങ്കിൽ ഇപ്പം മാനേജ്മെൻ്റ് തമ്മിലുള്ള പ്രശ്നമാണ് നമ്മൾ ബാത്ത് റൂം അങ്ങനെയുള്ള കേസ് ഫുഡിൻ്റെ കേസ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും അവരോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കും റിക്വസ്റ്റ് ചെയ്തിട്ടും മാറ്റം വരുത്തുന്നില്ലെങ്കിൽ എന്താ പറയുക അതിന് ഇടയിലുള്ള എന്താ പറയുക നടപടികളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് ചെയ്യാറ് അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാറ്